സുൽത്താൻ ബത്തേരി എന്ന നഗരസഭ അല്ലെങ്കില് സുൽത്താൻ ബത്തേരി എന്ന പ്രദേശം ചരിത്ര പരമായി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രദേശമാണ് സുൽത്താൻ ബത്തേരി എന്ന പേര് സുൽത്താൻ ബത്തേരിക്ക് ലഭിക്കുന്നത് സുൽത്താൻസ് ബാറ്ററി എന്ന രീതിയിലാണ് സുൽത്താൻസ് ബാറ്ററി എന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താൻ്റെ ആയുധ ശേഖരണം ആയുധങ്ങൾ സംരക്ഷിപ്പെട്ടിരിക്കുന്ന സ്ഥലം എന്ന രീതിയിൽ സുൽത്താൻസ് ബാറ്ററി എന്ന് പണ്ട് പറയുകയും എന്നാൽ അതിനെ മാറ്റം വന്ന സുൽത്താൻസ് ബാറ്ററിയെ സുൽത്താൻ ബത്തേരി എന്ന പേരിലേക്ക് മാറുകയും ചെയ്ത ഒരു പ്രദേശമാണ് ടിപ്പു സുൽത്താൻ്റെ കാലത്തു ഈ പ്രദേശത്തു ജൈനിക്ഷേത്രം പിടിച്ചടക്കുകയും അത് ടിപ്പു സൂൽത്താൻ്റെ ആയുധ ശേഖരങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ട സ്ഥലമാക്കി മാറ്റുകയും ചെയ്യുന്നതി ൻ്റെ ഭാഗമായാണ് ടിപ്പൂസ് ബാറ്ററി എന്ന് ഈ പ്രദേശം അറിയപ്പെട്ടത് ഇവിടെ പറയത്തക്ക രീതിയിലുള്ള വലിയ മാർക്കറ്റുകൾ ഇല്ലാ എങ്കിലും അത്യാവശ്യം ബാംഗ്ലൂർ മൈസൂർ കോഴിക്കോട് പാതയിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് ഗ്രാമീണ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വിവിധങ്ങളായ പ്രൊഡക്ടുകൾ ലഭിക്കുന്ന സ്ഥലമാണ് ബത്തേരി പ്രദേശം ഇവിടെ മിൻറ്റ് മാളുണ്ട് ഡേ മാളുണ്ട് അവിടെ എല്ലാം വിവിധങ്ങളായ പ്രോഡക്ടസുകൾ ആവശ്യമുള്ള പ്രോഡക്ടസുകൾ വിവിധങ്ങളായ സാധനസാമാഗിരികൾ ലഭിക്കുന്നതാണ്